അതെ ഞങ്ങളുടെ പ്രദേശത്ത് കളിക്കുന്ന കായിക ഇനങ്ങളും മറ്റു സംസ്ഥാനത്തെ കളികളും വ്യത്യസ്തത ഉണ്ട് കാരണം ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കുറ്റിയും കോലും അതുപോലെ ഈർക്കിലി ഇങ്ങനെ ഇട്ടിട്ടുള്ളൊരു കളിയുണ്ട് അത് അതുപോലെ അച്ചൂട്ടി ഇങ്ങനെ പല കളികളും നമ്മുടെ ഞങ്ങളുടെ പ്രദേശത്ത് ഉണ്ട് പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനത്തെ കളികളൊന്നും കണ്ട് വരുന്നില്ല അവിടെ ഫുട് ബോൾ ക്രിക്കറ്റ് അതിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളു പക്ഷെ ഇങ്ങനത്തെ കളികളും ഒന്നും അവിടെയല്ല ഇതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കളിച്ച് വരുന്ന ഒരു കളികളാണ് ഇതൊന്നും മറ്റ് സംസ്ഥാനത്ത് നമ്മൾ കണ്ട് വരുന്നില്ല ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ